എനിക്ക് മെയ്നായിട്ട് ബാല്യ കാലത്ത് കുറെ സ്മരണകൾന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം എൻ്റെ ആദ്യമൊന്നും വീട്ടീന്ന് എവിടേം പുറത്ത് ഇറക്കാന്നും വിടാത്തൊരു ടൈപ്പായിരുന്നു വീട്ടിൽ ആ അപ്പം ഞാന് ഇടക്ക് ഇവിടുന്ന് ഒളിച്ചും പത്തുവൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിക്കാനും ഗ്രൗണ്ടിലൊക്കെ പോയിരിക്കുവായിരുന്നു അപ്പം അതക്കെ എനിക്കൊരു എന്താ പറയാ ഓർമ്മേൽ നിൽക്കുന്ന ഒരു കാര്യങ്ങളാണ് ആ പിന്നെ എങ്ങനേന്ന് വച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പം പിള്ളേരെ എന്താ പറയാ അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ കളിക്കുമ്പഴും അപ്പം ഞാനൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കും അപ്പോൾ ഇവർ വിളിക്കും വരാൻ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എന്നെ വിടില്ല പിന്നെ ഞാന് അമ്മേനോട് കള്ളം പറഞ്ഞ് മെല്ലെ നൈസിൽ ചാടി അങ്ങനെ പോകാറുണ്ട് അപ്പം അതൊക്കെ എനിക്കൊരു ഓർമ്മയായിട്ടാണ് ഇപ്പം നിക്കുന്നത് പിന്നെ എങ്ങനേന്ന് വച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടക്ക് എല്ലാവർക്കും എൻ്റെ താഴേയുള്ള ആൾക്കാർക്കെല്ലാം സൈക്കിൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതുവരെ സൈക്കിൾ ഇതുവരെ ഒരു സൈക്കിൾ ഓടിക്കാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ താഴെ ചേട്ടായിൻ്റെ സൈക്കിള് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിക്കുന്നല്ലാണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് ഒരൊമ്പതാം ക്ലാസ്സെത്തിയപ്പോഴാണ് സൈക്കിൾ മേടിച്ച് തന്നത് സൈക്കിൾ മേടിച്ച് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരു ബൈക്ക് കിട്ടുന്ന ഒരു സന്തോഷായിരുന്നു നമുക്ക് സൈക്കിള് കിട്ടുമ്പോൾ അപ്പോൾ ആ അതൊക്കെ എനിക്കൊരു ഓർമ്മയായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്